ഗ്രാമത്തിൽ പശുത്തൊഴുത്തുകൾ ധാരാളം ഉള്ളതിനാൽ രാത്രി വന്യമൃഗങ്ങൾ വന്ന് പശുക്കളെയും കിടാങ്ങളെയും പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്യാറുണ്ട് പക്ഷേ വൈദ്യുതി വന്നപ്പോൾ തൊട്ട് നമുക്ക് അത് തൊഴുത്തിൽ നമുക്ക് ലൈറ്റ് ഇടുകയും വന്യമൃഗങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ കൃഷി ഇടങ്ങളിൽ നമുക്ക് വെള്ളം പമ്പ് പമ്പ് സെറ്റ് വെച്ചടിക്കാൻ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും